അ ആ ഞാന് എനിക്ക് നാളെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബകൂട്ടായ്മയായിരുന്നു ആ നാളെ എനിക്ക് ഒരു പത്ത് മുപ്പത് പേര്ക്കുള്ള ചായയും അതിനുള്ള പലഹാരങ്ങളും വേണം ഒരു എഴുമണി ആകുമ്പോളേയ്ക്ക് തന്നാൽ മതി അതിന്റ അകത്ത് അതിന്റ അകത്ത് ഇരുപത് ചായയും എന്നാ മുപ്പത് ചായയിൽ പത്ത് വിത്തൌട്ടും ഇരു ബാക്കി പഞ്ചസാര ഇട്ടതും കേട്ടോ ആ പിന്നെ പിന്നെയൊരു പത്ത് ഒരു ഈരണ്ട് കടി വെച്ച് ഏ ഒരാള്ക്ക് ആ ബോളി ആയിക്കോട്ടെ ഒരു മുപ്പത് ബോളിയും മുപ്പതും ആ ആ നാൽപത് ബോളി എടുത്തോ നാൽപത് ബോളി ഒരു നാൽപത് ബോളിയും ഒരു ഇതുക്കൂട്ട് അച്ചപ്പം അല്ല മറ്റേ പത്തിരി ഒരു ഇരുപത് എണ്ണം ഒരു ഒരു ഇരുപത്തി അഞ്ച് എണ്ണം അതും എടുത്തോ ഉള്ളത് ഉം നാളെയൊരു എഴുമണി യാ ആറരയാകുമ്പത്തേനും കൊണ്ട് തരണം ആ എ കുഴപ്പം ഇല്ലല്ലോ ആ മതി ആ അതെ അതെ അതാണ് ഞാന് പറഞ്ഞത് അന്നേരത്തേക്ക് കൊണ്ട് തന്നാൽ മതി ഉം അ ആ ആ അങ്ങനെ തന്നാൽ അങ്ങനെ കൊടുത്ത് വിട്ടാൽ മതി ഉം

ആ അതെയതെ

ആ ആ ഉം ആ പൈസ ഒരു പണി ചെയ്തേരു രാവിലെ ആ കടയിലോട്ട് വരുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ അതിലേ ഇറങ്ങുന്നുണ്ടോ അതിലേ വീടിന്റെ അതിലേ വരുന്നുണ്ടല്ലോ രാവിലെ അതിലെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരാളിന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്ത് വിട്ടേക്കാം പോരെ ഏ ആ രാവിലെ ഞാന് അങ്ങോട്ട് കൊടുത്ത് വിട്ടേക്കാം കേട്ടോ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാന് രാവിലെ കൊടുത്ത് വിട്ടേക്കാം ഉം ആ ഓട്ടോയ്ക്ക് ഓട്ടോക്കൂലി ഞാന് കൊടുത്തോളാം പൈസയും ആ പൈസ വേണ്ടത് ഓട്ടോക്കൂലി അത് ഓട്ടോയിൽ വിട്ടാൽ പോരെ ഏ ആ എന്നാൽ ഏ ആ അതിന്റെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഓട്ടോയിൽ വിടുമോ എങ്ങനേലും ഞാന് പൈസ പൈസ സാരവില്ല രാവിലെ ഒരു പത്തുമണി ആകുമ്പോൾ പൈസ അവിടെ എങ്ങനെ എങ്കിലും എത്തിച്ചേക്കാം ആ നല്ല ആ നല്ല ചൂട് സാധനം കൊണ്ട് തരികയും ചെയ്യണം ഏ അതാണ് ആ ആ ഒരു അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ ഒരു കെട്ട് വിട്ടേക്കണം ആ

വിത്തൌട്ട് പത്ത് ആ ബാക്കി പത്തിരുപത്തഞ്ച് അല്ലാത്ത ചായ ആ അതാ അതാ നമ്മുടെ സാധാ മിനിമം മധുരം മതിയേ മീഡിയം മതിയേ മീഡിയം ഉം നല്ല നല്ല ചായ ആയിരിക്കണമെന്ന് മാത്രം ആ ആ മറ്റേ ആ ആ ആ എണ്ണ ഒത്തിരി ഒന്നും പിടിക്കാത്ത രീതിയിൽ കയറ്റി വിടണം ബോളി കേട്ടോ ആ ആ